ആ ആ അത് ഞാനാണ് ജോസൂട്ടിയാണ് ലാൽജി ആണല്ലേ പിന്നേ എവിടെയാണ് കാണുന്നില്ലല്ലോ കുറച്ച് നാളായല്ലോ കണ്ടിട്ട് ഹാ ഇവിടെ ഉണ്ടല്ലേ പിന്നേ നമുക്കേ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതേ നമ്മുടെ പൊതുവായിട്ടുള്ള വഴിയില്ലേ നമ്മുടെ വഴി നമുക്ക് അറിയാമല്ലോ അത് വളരെ കുണ്ടും കുഴിയും ഒക്കെ ആയിട്ട് കിടക്കുവാണ് അതുപോലെ തന്നെ നമുക്കൊരു ആ വണ്ടിപോലും പോകില്ല പോകത്തൊന്നും ഇല്ല അപ്പോൾ നമുക്ക് ആ വഴി ഒന്ന് നമുക്ക് ഒന്ന് നന്നാക്കാൻ നമുക്ക് എന്ത് ചെയ്യണം അത് നടക്കുമോ കാരണം അതിനൊക്കെ എന്നുവെച്ചാൽ ഓരോ വർഷത്തിലെ പ്രോജക്റ്റ് ഒക്കെ വെച്ച് പോയി ഇപ്പം അത് ഈ പ്രോജക്റ്റ് എല്ലാം കഴിഞ്ഞ് കാണും ഇനി ഇപ്പോൾ അടുത്ത വർഷത്തെ പ്രോജക്റ്റ് എന്ന് പറയുമ്പം മൂന്നാല് വർഷം കാത്തിരുന്നാൽ നമ്മൾ അപകടത്തിലാവും നമുക്കും നമ്മുടെ മക്കളും ഒക്കെ ഈ കുഴിയിൽ പോകും നമുക്ക് ഒന്ന് പൊതുവായിട്ടൊന്ന് നമ്മൾ ഒരു കമ്മിറ്റി വല്ലതും വിളിച്ചുകൂട്ടി നമുക്കൊന്ന് ആലോചിച്ചാലോ നമ്മു ടെ പ്രദേശവാസികളെ ചേർത്ത് ആ ആ ആലോചിക്കാം അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഡേറ്റ് വെച്ചിട്ട് നമുക്ക് ആദ്യമേ നമുക്ക് ഇതിൻറെ ഒരു പിന്നെ ഒരു ചെറിയൊരു കമ്മിറ്റി എല്ലാം നമുക്ക് എടുക്കാം അത് ഇതിനകത്ത് നിന്നൊരു പ്രവർത്തിക്കാനായിട്ടൊരു ചെറിയൊരു ടീമിനെ ഒന്ന് സെലക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു മീറ്റിംഗ് പോലെ വിളിച്ചുകൂട്ടിയിട്ട് ഒരു ടീമിനെ സെലക്റ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ആദ്യം ഇവർ ആദ്യം പറഞ്ഞതുപോലെ വേണമെങ്കിൽ നമുക്കൊരു ഒഫീഷ്യൽ ആയിട്ട് നടത്തിയിട്ട് നമുക്ക് നമ്മുടെ വാർഡ് കൗൺസിലറെക്കൊണ്ട് കാണിക്കുകയോ അവരുടെ സഹായം യാചിക്കാം ഇനി അത് അങ്ങനെ നിൽക്കട്ടെ എന്നാലും നമ്മുടെ ആൾക്കാരും സഹകരിച്ച് നമുക്ക് ഒരു കോൺട്രിബ്യുഷൻ ഒക്കെ എടുത്ത് ചെയ്യത്തക്കവണ്ണം നമുക്ക് ആ മീറ്റിംഗ് ഒക്കെ വിളിച്ചുകൂട്ടാനുള്ള ശ്രമം ഈ എടുക്കുന്ന സെലക്റ്റ് ചെയ്ത ആൾക്കാരുടെ അവർ ശ്രമിച്ച് നടത്തട്ടെ അല്ലേ അങ്ങനെ വല്ല അങ്ങനെ വരുമ്പം അവർ തീരുമാനിക്കുന്ന ഒരു ഡേറ്റിൽ കൂടാൻ പറ്റുമല്ലോ ആ ആ ആ

ആ വേണം വേണം എസ്റ്റിമേറ്റ് ഒക്കെ എടുക്കണം എടുക്കാം എന്നാലും ഒരു ഏകദേശം നമുക്ക് അത് നമ്മൾ എത്ര മീറ്റർ ആണ് നീളം അത് ഒരു ഒരു പത്ത് മുന്നൂറ് മീറ്റർ നീളം വരില്ലേ മുന്നൂറ് മീറ്റർ കാണുമായിരിക്കും അപ്പോൾ അതിൽ നമുക്കൊരു ഏകദേശം എത്ര രൂപ വേണ്ടിവരും സപ്ലൈ അനുസരിച്ച് ചെയ്യാം അല്ലേ നമുക്ക് എന്തായാലും നമുക്ക് ആ ഹാ ഹാ അപ്പോൾ എന്തായാലും നമുക്ക് നമുക്ക് ഇന്ന് ടൈൽ ഇടാമെന്നൊരു ആ ഒരാശയത്തിൽ നമുക്ക് നിൽക്കാം അപ്പോൾ ഒരു മുന്നൂറ് മുന്നൂറ് ഇൻറു നമുക്ക് രണ്ട് മീറ്റർ അല്ലേ വീതി ഉള്ളൂ അപ്പോൾ മുന്നൂറ് ഇൻറു രണ്ട് അറുനൂറ് സ്ക്വയർ അറുനൂറ് മീറ്റർ ഉണ്ട് അപ്പം അറുനൂറ് സ്ക്വയർ മീറ്റർ ഉണ്ട് അപ്പോൾ ഒരു ആറായിരം സ്ക്വയർ ഫീറ്റ് നോക്കാം ആറായിരം സ്ക്വയർ ഫീറ്റിന് ഒരൂ ഇരുനൂറ് വെച്ച് പറ്റും ഇരുനൂറ് വെച്ച് അപ്പം ഒന്ന് ഒരു ലക്ഷത്തി പന്ത്രണ്ടാവും അല്ലേ പന്ത്രണ്ട് ലക്ഷം ആവും പന്ത്രണ്ട് ലക്ഷം രൂപയാകും അല്ലേ ആ ആ ഒരു ലക്ഷത്തി ഇരുപതിനായിരം അതെ അതെ ആ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമുക്ക് ടൈൽ വർക്ക് ചെയ്യുന്നതിനായിട്ട് സബ് ടൈൽസ് ഒക്കെ റെഡി ആക്കാനായിട്ട് ആ ഒരു എൺപതിനായിരം അങ്ങനെ രണ്ട് ലക്ഷം രൂപയുടെ ഒരു നമുക്ക് വയ്ക്കാം അപ്പോൾ നമുക്ക് ഈക്വൽ ഡിവിഷൻ ആയിട്ട് എടുക്കാം എന്താണ് ആ ആ അപ്പോൾ നമുക്കൊരു കമ്മിറ്റി വിളിക്കാൻ തീരുമാനിക്കാം ഓക്കെ ആ ശരി ആ ആ ശരി ശരി ശരി ആ എന്നാൽ ഇന്ന് തന്നെ വിളിക്കാം ശരി ശരി ആ ശരി ശരി ശരി ശരി ഓക്കെ ബൈ